ആ അതെ ആരാണ് ആ ഓക്കെ ആ എന്നാണ് പോവേണ്ടത് വൈകീട്ട് എത്ര പേരുണ്ട് ആ ഓക്കെ കുട്ടികളുണ്ടോ ആ ഓക്കെ ഓക്കെ നാളെ രാത്രി രാത്രി പോകാമല്ലേ അപ്പോൾ എത്ര മണിക്കാണ് പോകേണ്ടത് ഇവിടുന്ന് എപ്പോഴാണ് പുറപ്പെണ്ടേണ്ടത് ആ ഓക്കെ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാമല്ലേ എന്നാൽ പിന്നെ വേറെ എങ്ങും ഇറങ്ങേണ്ടല്ലോ

ആ എന്നാൽ രാത്രി പത്ത് മണിക്ക് അങ്ങനെ പോകാം ആ ഞാൻ അപ്പോഴേക്കും റൂട്ട്

ആ ആ അറിയാം പിന്നെ നാല് പേർക്ക് ഏകദേശം ആ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് മാക്സിമം എല്ലായിടത്തും പോകാം പിന്നെ ബാക്കി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ പോയിൻറും എക്കോ പോയിന്റ് ഒക്കെ ഉണ്ട് വാട്ടർഫാൾസ് പവർ സ്റ്റേഷൻ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അതും കൂടെ കണ്ടും കൊണ്ടങ്ങനെ റിട്ടേൺ അടിക്കാം പിന്നെ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് അറിയുന്നവരുണ്ട് ആ ഓരടുത്ത് ഞാൻ കോൺടാക്റ്റ് ചെയ്തോണ്ട് ഏകദേശം ഒരു പത്ത് രൂപേൻ്റെ ഉള്ളിലാവും ഒമ്പതിനായിരത്തിൻ്റെ ഉള്ളിലാവും രണ്ട് ദിവസത്തിനല്ലേ അക്കോമഡേഷനും ഫുഡ്ഡും എല്ലാതും കൂടെ നമുക്ക് ആ ആ യാത്രാ ചിലവെല്ലാം കൂടെ എന്നാൽ പിന്നെ രാത്രി എന്നാലൊരു ഒമ്പതര ആവുമ്പത്തിന് ഒമ്പതേ മുക്കാലാവുമ്പത്തേന് വരാം പത്ത് മണിക്കല്ലേ പോവേണ്ടത് പിന്നെ റെഡി ആയി നിന്നാൽ മതി എന്നാൽ ആ ഓക്കെ നാല് പേരും ഒരുമിച്ച് ഒരു സ്ഥലത്തല്ലേ ഉണ്ടാവുക

ആ ആ ആ ആ ഓക്കെ ഈ ഈ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ആ ആ ഓക്കെ എന്നാൽ